ഞങ്ങൾ വാർത്തയിലും വായിക്കുന്നുണ്ട് പത്രമെടുത്താൽ ന്യൂസും ഏറെക്കുറേ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിൻ്റെ അനുസരിച്ച് ഞങ്ങൾ വായിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ദിവ്യ പത്രമാണ് ഞാൻ വായിക്കുന്നത് ആ ദിവ്യ പത്രത്തിൽ നല്ല നല്ല കാര്യങ്ങൾ എഡിറ്റോറിയലൊക്കെയാണെങ്കിലും നല്ലതായിട്ടുണ്ട് അപ്പം അതിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് അറിവ് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് പിന്നെ ന്യൂസുകൾ ന്യൂസുകളൊക്കെ ഒരുപാട് അന്ന് അതാത് ദിവസത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ മരണ വാർത്തകൾ നമ്മളുടെ റിലേഷനിലും നമ്മുടെ പരിചയത്തിലോ ആൾ മരണക്കോളത്തിൽ അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നമ്മളറിഞ്ഞില്ലെങ്കിൽ പോലും ഈ പത്രത്തിൽ കണ്ട് നമ്മൾ പല ഇതിലും പല മരണത്തിലും മരണ വീടുകളിൽ ചെന്ന് അവരുടെ ഇതിൽ സംബന്ധിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ പത്രവാർത്തകളിൽ ഏറെ കുറേ പത്രം ഇതിപ്പോൾ ഒരു നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് അത്രയേ ഉള്ളൂ